ഉത്സവ സമയങ്ങളെന്നു പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ പ്രധാനമായിട്ട് നമ്മളുത്സവങ്ങളായിട്ട് ആഘോഷിക്കാറുള്ളത് ഓണം അതുപോലെതന്നെ എന്താണ് ക്രിസ്മസ്സ് ക്രിസ്നുമസ്സ് നമുക്കുത്സവമായിട്ട് കണക്കാക്കാമ്പറ്റത്തില്ല എങ്കിലും ഓണമാണ് നമ്മളെ ഓണം വിഷു അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മള് പ്രധാനമായിട്ടൊരു ഉത്സവസമയമായിട്ട് നമ്മളാഘോഷിക്കാറുള്ളത് എ നമ്മുടെ നാടുകളില് ആഘോഷിക്കാറുള്ളത് ആ സമയങ്ങളില് കൂടുതലായി ഉണ്ടാക്കുന്ന വിഭവങ്ങളെന്ന് പറഞ്ഞാല് പായസം അതുപോലെതന്നെ ഉണ്ണിയപ്പം ചക്ക അട ചക്കകൊണ്ടുള്ള പല കാര്യങ്ങള് ചെയ്യുമല്ലോ പല വിഭവങ്ങളുണ്ടാക്കുമല്ലോ പിന്നിപ്പോള് ഓണം തന്നെ എടുക്കുവാണെങ്കില് ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഓണസദ്യ എന്ന് പറയുന്നത് ഓണസദ്യയിൽത്തന്നെ നമുക്ക് പലതരം പലതരം കറികളുണ്ട് കൂട്ടുകറി ഓലൻ കാളൻ അവിയല് സാമ്പാറ് പുളിശ്ശേരി പിന്നെ പിന്നെന്താണ് നമുക്കച്ചാറ് തോരൻ അങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങള് നമ്മള് കഴിക്കുന്നുണ്ടല്ലോ പിന്നെ ഈ വിഷുവാണെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടും നമ്മള് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് വിഷുവിന്റെ സമയത്തും ഓണത്തിന്റെ സമയത്തുമൊക്കെ പായസമെന്ന് പറഞ്ഞാല് പായസം തന്നെ നമുക്ക് അടപ്രഥമൻ പാൽപ്പായസം കടലപ്പായസം പരിപ്പ് പായസം സേമിയാപ്പായസം അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള പായസങ്ങളും കാര്യങ്ങളും നമ്മള് കഴിക്കാറുണ്ട് ഇനിയിപ്പോള് ഇനിയിപ്പോള് നമ്മള് ദീപാവലി അങ്ങനെയുള്ള ഉത്സവങ്ങളെടുക്കുവാണെങ്കിൽ ആ സമയത്ത് നമ്മള് കൂടുതലും കഴിക്കുന്നത് മധുരപലഹാരങ്ങളായിരിക്കാം പേട പിന്നെന്താണ് കാജു കഡ്ലി അതൊക്കെ നമ്മള് കുറച്ചുകൂടി നോർത്തിന്ത്യ വടക്കേ ഇന്ത്യ ആ ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് കുറച്ചുകൂടെ ഇങ്ങനെയുള്ള മധുരപലഹാരങ്ങള് നമ്മളുണ്ടാക്കിക്കഴിക്കുന്നത് മധുരപലഹാരങ്ങളായിട്ട് ഉണ്ടാക്കിക്കഴിക്കുന്നത് ഇനി നമ്മള് ദീപാവലി ദീപാവലിയില് കൂടുതലും മധുരപലഹാരങ്ങളാണ് പോകുന്നത് ജിലേബി കഴിക്കും ലെഡ്ഡു ഉണ്ടാക്കും അപ്പോള് ലെഡ്ഡു ഒക്കെ ഉണ്ടാക്കുവാണേൽ നമ്മള് ബൂന്തി നേരത്തെ കടലമാവില് നമ്മള് ബൂന്തി നേരത്തെ തയ്യാറാക്കിവച്ചിട്ട് അത് ബൂന്ദി ഒക്കെ ഉണ്ടാക്കി അതുപിന്നെ ഉരുട്ടി പഞ്ചസാര പാനിക്കകത്തിട്ട് അങ്ങനെയാണ് നമ്മള് ലെഡ്ഡു ഉണ്ടാക്കുന്നെ പായസമാണെങ്കിലും നമ്മള് എന്താണ് ഈ തേങ്ങാപ്പാല് തന്നെ രണ്ട് തരം രണ്ടു തരമെടുത്തിട്ട് അരിയോ അങ്ങനെന്തേലുമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സേമിയയാണെങ്കിൽ സേമിയ സേമിയ വറുത്തുകോരി അതിലേക്ക് പാലൊഴിച്ച് പശൂവിന്പാലോ അങ്ങനെന്തേലുമൊഴിച്ച് അതില് അണ്ടിപ്പരിപ്പും കിസ്സ്മിസ്സും അങ്ങനെയുള്ള കാര്യങ്ങളിട്ടാണ് നമ്മളങ്ങനെയുള്ള വിഭവങ്ങളുണ്ടാക്കുന്നത് ഇനി കുറച്ചുകൂടെ നാട്ടിൻപുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇലയട അതുപോലെതന്നെ വട്ടയപ്പം ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങനെയുള്ള സാധങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ പിന്നെ നമുക്ക് കിട്ടുന്ന ഈ അമ്പലത്തിലൊക്കെ ഏറ്റവും കാര്യമായിട്ട് കിട്ടുന്ന വിഭവങ്ങളൊക്കെയാണ് ഈ പായസം എന്ന് പറയുന്നെ ഏതാന ഈ കടുമ്പായസമെന്നൊക്കെ പറയും അരിയൊക്കെ കുറച്ച് ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് അതുപോലെതന്നെ അവര് പൂജിച്ച് പാൽപ്പായസം പാല് ചേർത്തെ ഇപ്പോള് ഗുരുവായൂരൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടത്തെ ഉത്സവങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ പാൽപ്പായസമാണവിടുത്തെ നിവേദ്യമൊക്കെയായിട്ട് പോവുന്നത് അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഇനി നമ്മളുടെ ഈസ്റ്ററല്ലേല് ക്രിസ്മസ്ന്നൊക്കെ പറഞ്ഞാൽ അതും നമുക്ക് ഉത്സവമായിട്ട് ഉത്സവത്തിന്റെ ഗണത്തിൽപ്പെടുത്താന് പറ്റും അത് എടുക്കുവാണെങ്കിലും നമ്മള് എന്താണ് പിടി അങ്ങനെയുള്ള സാധനങ്ങളുണ്ടാക്കുമല്ലോ കേക്കുകള് ഇപ്പോള് ക്രിസ്മസിനേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കേക്കെന്ന് പറയുന്നത് കേക്ക് ഒന്നെങ്കില് നമ്മള് വാങ്ങിക്കുക അല്ലെങ്കില് നമ്മള് വീട്ടില്ത്തന്നെ ഇപ്പോള് ഉണ്ടാക്കുന്നതിപ്പോള് ഏറ്റവും കൂടുതല് സുലഭമായി കിട്ടുന്ന ഒരു കാര്യമാണ് സുലഭമായി കിട്ടുന്ന കേക്കെന്ന് പറയുന്ന ക്രിസ്മസിന്റെ സമയത്ത് അതിപ്പോള് നമ്മളാണെങ്കില് മേടിക്കുന്നതിനേക്കാൾ കൂടുതലാളുകൾ ഹോം ബേക്കേഴ്സിപ്പോള് ആണെങ്കില് വീടുകളിൽത്തന്നെ ഇപ്പോള് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഒന്നെങ്കില് ഉണക്കമുന്തിരിയോ അങ്ങനെന്തേലും നട്ട്സോ അങ്ങനെന്തേലും കൂടിച്ചേർത്തിങ്ങനെ പ്ലം കേക്കിനുള്ള കാര്യങ്ങളുണ്ടാക്കും പ്ലം കേക്കുകളാണ് കൂടുതലും ഈ ക്രിസ്മസിന്റെ സമയത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോള് ആ സമയത്ത് ഈ മൈദമാവും മുട്ടയും അതുപോലെതന്നെ ബട്ടറൊക്കെ ചേർത്തിട്ട് നെയ്യൊക്കെ ചേർത്തിട്ടാണെങ്കില് അത് കലക്കി ഒരു കൂട്ട് പോലെയാക്കി അത് ഓവനിലോ എന്തിലോ ഒരടുപ്പിലോ വച്ച് അടുപ്പിലോ വച്ച് അത് ബേക്കെയ്തെടുത്ത് അങ്ങനെയാണ് ക്രിസ്മസ് സമയങ്ങളി നമ്മള് കേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് നമ്മളത് ആഘോഷിക്കുന്നത്